യാ ഇപ്പോൾ ചിലവായ ഇപ്പൊഴത്തെ പൈസ ഞാൻ ആഹ് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഇവിടെ എൻ്റെ ഫോണിന് റേയ്ജൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് ഇത് പൈസ തന്നുകഴിഞ്ഞാൽ മേടിക്കാമോ യു പി ഐ ഐ ഡി എൻ്റെ കയ്യിൽ ഒന്നും ഫോൺ പെയും ഗൂഗിൾ പേയും പേടിഎം ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ നെറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ ആന്ന തോന്നുന്നത് എൻ എൻ്റെ കഴിലിരിക്കുന്ന പൈസ കൊണ്ട് പൈസ തന്നാൽ മതിയോ ഇ വണ്ടിക്കൂലി അതിന് തന്നാൽ മതിയോ